തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കരുത് ആവാത്തവനെക്കൊണ്ട് പിന്നെ ആവാത്ത പണി ചെയ്യിപ്പിക്കരുതെന്നാണ് അതിൻ്റെ അർഥം പിന്നെ ചുട്ടയിലെ ശീലം ചുടലവരെ എന്നു വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ചു അല്ലെങ്കിൽ കേട്ടുവളരുന്ന കാര്യങ്ങൾ നമ്മൾ വലുതാവുന്നതുവരെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ചുട്ടയിലെ ശീലം ചുടലവരെ പിന്നെ അടി തെറ്റിയാൽ ആനയും വീഴും എന്നു വെച്ചാൽ ഏതു വലിയ ആൾക്കാരാണെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ തകർന്നുപോകും പിന്നെ ആറ്റിലിറങ്ങിയവനെ അതിൻ്റെ ആഴമറിയൂ എന്നുവെച്ചാൽ ഒരു പരിപാടിയിൽ അതിനെപ്പറ്റി അറിയുന്നവന് അയിൻ്റെ ഒരു കടമ്പകളും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും മനസ്സിലാക്കാനാവു അല്ലാണ്ട് കരയ്ക്കു നിന്നിട്ടിപ്പോൾ അതിൻ്റെ ആഴം പറയാൻ പറ്റില്ലല്ലോ അനുഭവമാണ് മഹാഗുരു അനുഭവിക്കുന്നവന് അനുഭവം